ഹലോ ആ ഞാൻ പിടീം ഇറച്ചിയും ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു കോഴിയിറച്ചി ഒരു പത്ത് ആ അത് ഏകദേശം എത്ര പൈസയാകും പത്ത് ഒന്നിനെത്ര പൈസ വരും

ചിക്കൻ ചില്ലിയായിട്ട് ഉണ്ടാകുമോ

ഇല്ല ഓർഡർ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നത് അത് ടൈം നമുക്ക് അതെയല്ലേ ആ ആ അത് നമ്മള് ആ ടൈം കറക്റ്റ് ആ ടൈമിനെത്തുവോ നമുക്ക് സാധനം

ആ അതെ പത്ത് വേണ്ടായിരുന്നു ഞങ്ങള് മീനങ്ങാടിയാണ് സ്ഥലം ആ മീനങ്ങാടിയാണ് നമുക്കൊരു നാളെയൊര് ഒരു ഒരുമണിയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി ആ ആ വേറെ ഡ്രിങ്ക്സ് വേണ്ട ഡ്രിങ്ക്സ് വേണ്ട ആ വേണ്ടവേണ്ട

ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ താങ്ക്യു ഓക്കെ